മീറ്റ് ഷോപ്പല്ലെ ഞാൻ ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസറിയാൻ വേണ്ടി വിളിച്ചതാണല്ലോ എനിക്ക് ഒരു ട്വൻ്റി ഫിഫ്ത്തിലേക്ക് ഒരു നൂറ് കിലോ ബീഫ് വേണമായിരുന്നു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ബീഫിനാ പോത്തെർച്ചിക്കകത്ത് കാളേട ഇറച്ചി കൂടെ മിക്സാക്കി ആണല്ലോ തന്നത് പക്ഷേ അതെനിക്കറിയില്ല എനിക്ക് ലഭിച്ചതിനകത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കീപ്രാവശ്യം നല്ലതാണെങ്കിൽ മാത്രമേ ഞാനത് വാങ്ങത്തുള്ളു എനിക്കൊരു നൂറ് കിലോ വേണമായിരുന്നു ഇരുപത്തഞ്ചാം തിയ്യതിക്കകത്തേക്ക് നിങ്ങളുടെ റേറ്റ് നിങ്ങളുടെ റേറ്റ് എത്രയാണ് ഏറ്റവും ബൽക്കായ ഓർഡർ ആയതുകൊണ്ട് കുറവൊന്നുമില്ല ബൾക്ക് ഓർഡറിന് ഒന്നും പക്ഷേ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ഉണ്ടല്ലോ ബൾക്ക് ഓഡ്രിന് നമ്മളേതായാലും ഒരു കിലോയൊന്നും അല്ലല്ലോ എടുക്കുന്നത് കിലോയിൽ ഇരുപത് കുറയൂള്ളോ പക്ഷേ അല്ലല്ല നമുക്ക് മറ്റുള്ള ഷോപ്പ്കാർ നമുക്ക് തരുന്ന ഡിസ്കൗണ്ടനുസരിച്ച് എങ്കിലും നമുക്ക് തന്നാലല്ലേ ഇത്രോം ബൽക്ക് ഓഡർ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് തന്നെ വരുന്നതല്ലേ അത് പറയണ്ട കാരണം കഴിഞ്ഞ പ്രവശ്യത്തേതിനകത്ത് ഇങ്ങനെ ഒരു ഇതൂടെ വന്നതാണ് അത് ഞാനന്ന് കുറച്ചു ഓർഡറേ എടുത്തിട്ടുള്ളു ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പൂടെ ആയത്കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഓഫറ് വീണ്ടും നിങ്ങളോടുതന്നെ ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നതിനകത്തൊരു വ്യത്യാസമുണ്ടായിരുന്നു അതെനിക്കറിയില്ല ആരേലും പറയാത്തതാണോ എന്താണ് എന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയതിനകത്ത് സംഭവമുണ്ടായിരുന്നു അതിനെ എനിക്കറിയാൻ പറ്റത്തുള്ളു മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറ നിങ്ങളവിടെ ഉണ്ടെങ്കിലും അത് പറയായിക ആണോ എന്നുള്ളത് പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് എന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനാ സാധനം തിരിച്ച് തരുന്നതായിരിക്കും പക്ഷേ എനിക്ക് നൂറ് കിലോ നല്ല റെഡിയാക്കി ഇരുപത്തഞ്ചാം തിയതിക്ക് ഇരുപത്തഞ്ചാം തിയതിക്ക് രാവിലെ എട്ട് മണി ആവുമ്പോൾത്തേക്ക് വീട്ടിലെത്തിച്ചേക്കണം അ വീട് അതെ ഡെലിവറി ചെയ്യണം ആ ആ ആ കാർട്ടിൽ ഇട്ടേക്കാം പക്ഷേ നല്ല സാധനമാണെങ്കിൽ മാത്രമേ പൈസ തരു തരത്തുള്ളു എന്തെങ്കിലും ഇത് ആ അതടച്ചോളും ആ പൈസ തരത്തുള്ളു കാരണം മാറ്റമുണ്ടെങ്കിൽ ഞാനാ ആ റെയ്റ്റ് സാധനം തന്നിട്ട് കാര്യമില്ലല്ലോ അതെനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയ സാധനത്തിൻ്റെ ഇതാണ് പറഞ്ഞത് എപ്പോൾ എന്തൊ ആ നിങ്ങൾ അല്ലല്ല നമുക്ക് സാധനം കാണുമ്പോൾ അറിയാലൊ അല്ലാ എന്ന് ആണ് അറിയാമല്ലോ ഓക്കേ നിങ്ങൾ സാധനം എത്തിക്കുന്നത് നല്ലതാണെങ്കിൽ അന്നേരം തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ഇട്ടേക്കാം അതായത് ഇരുപത്തഞ്ചാം തിയതി എട്ട് മണി ആയിരിക്കുമ്പോഴത്തേക്കും സാധനം വീട്ടിലെത്തിച്ചേക്കുവോ രാവിലെ വേണം ഇല്ല ഇരുപത്തഞ്ചു ആകുമ്പോഴത്തേക്ക് എട്ട് മണിക്കെത്തിക്കു അല്ലോ ആ എന്നാൽ ശരി